ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സേവനങ്ങളൊന്നും നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നില്ല ഇപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ശമ്പളം കിട്ടും ഇപ്പോൾ നമുക്കെന്തെങ്കിലും നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവരുടെയടുത്ത് പോയി കാല് പിടിച്ച പോലെയാണ് നമ്മളോരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും അതായത് കൈക്കൂലി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ അതായത് ചില സ്ഥലങ്ങളിൽ കേട്ടോ എല്ലാ എല്ലാ ഓഫീസർമാരേയും ഒരുപോലെ പറയുന്നില്ല ചില ആൾക്കാർ ചില ആൾക്കാർക്കൊക്കെ കൈക്കൂലി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പാസാക്കി തരികയുള്ളൂ പക്ഷെ ഇതൊക്കെ ഇവരുടെ കടമയാണ് പക്ഷെ നമുക്ക് ഇതൊന്നും അവരോട് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ അവരോട് ഇത് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ പറയും ആ അതായത് അവര് പിന്നെ നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കുകയേ ഇല്ല അപ്പോൾ നമ്മളതൊന്നും ചിന്തിക്കേണ്ട നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നേടിയെടുക്കും പിന്നേയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഇപ്പോൾ വയോജന സൗഹൃദ പഞ്ചായത്ത് വയോ അമൃത പദ്ധതി മിത്രം പദ്ധതി അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് ഇപ്പോൾ അതായത് അസുഖമുള്ള രോഗികൾക്ക് അതായത് അവർക്ക് വേണ്ട കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും ഇല്ലായെന്ന് പറയുന്നില്ല പിന്നെ സർക്കാര് പെൻഷൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങള് തന്നെയാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയോജനങ്ങൾക്കൊക്കെ ചിലപ്പോൾ പൈസയും അതായത് ആരും കൊടുക്കാനൊന്നും ഇല്ലങ്കിൽ സർക്കാരിൻ്റെ ഈ ഒരു പൈസ കിട്ടുമ്പോൾ അവർക്ക് മരുന്ന് മേടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയൊരു ഉപകാരം തന്നെയാണ്